മുഴുത്ത ചെരലും അതുപോലെ നദി തടത്തിൽ നിന്നുള്ള ഉരുളൻ കല്ലുകളൊക്കെ നമ്മള് നമുക്ക് കലാവസ്തക്കളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇന്ന് നമ്മള് കൂട്തലും നമ്മുടെ വീടുകളില് പുതിയ പുതിയ വീടുകൾ വെക്കുമ്പഴത്തേനും അതിന് കൂടുതൽ അട്ട്രാക്റ്റീവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇത്തരം കല്ലുകളാണ് ഉപയോഗിക്കുന്നത് ഇത്തരം കല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് വീടുകളുടെ വീടുകളുടെ ഫ്രണ്ട് കൂടുതൽ അട്രാക്ടീവ് ആക്കാനും അതുപോലെ വീടിനുള്ളിൽ തന്നെ നമുക്ക് ആർട്ടായിട്ട് അതായത് എന്താണ് ഒരു ക്യാൻവാസ് നിർമിക്കുമ്പോൾ അതില് നമ്മള് ഈ കൽ ഇത്തരം കല്ല്കള് വെച്ചിട്ട് അതിനെ എന്താണ് കൂടുതല് മനോഹരമാക്കാനായിട്ട് നമ്മള് ഇത്തരം കല്ലുകളാണ് ഉപയോഗിക്കാറുള്ളത് അതുപോലെ എന്താണ് വീട് നമ്മുടെ ഇപ്പോൾ വീടുകളിൽ തന്നെ നമ്മള് ഫിഷ് ടാങ്ക് ഒക്കെ നിർമിക്കാറുണ്ട് അപ്പോൾ ആ ഫിഷ് ടാങ്കിലൊക്കെ നമ്മളിത്തരം ഉരുളൻ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് അത് കൂടുതൽ മനോഹരമാക്കാന് വേണ്ടിയിട്ട് നമ്മള് ചെയ്യുന്നത് പിന്നെ എന്താണ് വീടുകളിൽ തന്നെ കൂടുതൽ അലങ്കാരവസ്തുക്കളായിട്ട് ഇത്തരം കല്ലുകള് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ പുറത്തും വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ നമ്മള് ഇത് ചെയ്യാന് വേണ്ടിയിട്ടും അതുപോലെ വീടിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളില് കൂടുതല് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കല്ലുകള് ആണ് ഉപയോഗിച്ചിരുന്നത്